ആയോധന കലകൾ എന്നു പറയുമ്പോൾ കരാട്ടെ കുങ്ഫു തൈക്കോണ്ടോ പലതരത്തിലുള്ള സ്റ്റൈ ആയൊരു കലകളുണ്ട് ആ കലകളിൽ തന്നെ വ്യത്യസ്തമായ സ്റ്റൈലുകൾ ഇപ്പം കരാട്ടയിലാണെങ്കിൽ ഷോറിൻ്റ് ഷോട്ടാക്കാൻ അതു പോലെ തന്നെയുള്ള പല തരത്തിൽ തൈക്കോണ്ടോ പല സ്റ്റൈലുകൾ ഉണ്ട് അതു പോലെ തന്നെ കുംഫു ഡ്രാഗൻ കുംഫു അതു പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ അങ്ങനെ പലതും പല ആ മറ്റേത് ആർട്ടിസ്റ്റുകളാണ് ആർസ്റ്റുകളിൽ പല വ്യത്യസ്ത സ്റ്റൈലുകൾ കാര്യങ്ങളുണ്ട് നമ്മൾ ഷോറിൻറു കരാട്ടയിലാണ് പ്രാക്ടീസ് ചെയ്തത് അപ്പം അതിൽ മാർഷ്യൽ ആർട്സ് പഠിക്കാനുള്ള നമ്മുടെ തത്ത്വ ശാസ്ത്രം എന്നു പറയുന്നത് മൈ മൈൻഡിനുള്ള ഒരു ഒരു ഒരു എക്സസൈസ് പീസ്ഫുൾ മൈൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമെന്നു പറയുന്നത് കാരണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല ഇപ്പോൾ മൈൻഡ് മൈൻഡ് സെറ്റൊക്കെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനും അതു പോലെ തന്നെ നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാകുക അതിനുള്ള ആദ്യം ശരീരത്തിന് ആരോഗ്യം ആക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ആരോഗ്യ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള സ്ട്രക്ചേഡ് ആയിട്ടുള്ള ഒരു ആർട്സ് നമ്മളങ്ങനെ പഠിക്കുമ്പോൾ അതിന് സ്വഭാവികമായിട്ടും ഒരു കാര്യങ്ങളും നമുക്ക് ലഭിക്കാനുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഫിസിക്കൽ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെയാണ് നമ്മൾ മൈ മെൻ്റലി ആയിട്ടുള്ള ഹെൽത്തും കാര്യങ്ങളൊക്കെ രൂപപ്പെടുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഇതിലാണ് ആർട്സുകളാണ് ഉണ്ടാകുക ചിലത് പ്രതിരോധത്തിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാകുക ചിലത് അറ്റാക്കിനായിരിക്കും ഫോക്കസ് കൊടുത്തിട്ടുണ്ടാകുക ചിലപ്പോൾ രണ്ടും ചില ചില ആർട്സുകൾ രണ്ടും മെയിൻ്റെയിൻ ചെയ്തിട്ട് സമമായിട്ട് കൊണ്ടു പോകുന്നതുണ്ടാകും ഇപ്പം കുംഫുവിൻ്റെ ഡ്രാഗൻ കുംഫു എന്നു പറയുന്നത് പക്ക അറ്റാക്ക് മോഡുണ്ട് എനിമിയെ എങ്ങനെയും എങ്ങനെയും തകർക്കാം എങ്ങനെയും ആവശ അവശനാക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഡ്രാഗൺ കുംഫു ഒക്കെ വർക്കാകല് എന്നാൽ നേരെമറിച്ച് കരാട്ടയിലൊക്കെ ഷൊറിനൃയു കരാട്ടയിലൊക്കെ ഉണ്ടാകാറുള്ളത് എനിമിയെ റെക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്സ് കരാട്ടെ രൂപത്തിലാണ് ഇപ്പോൾ കാണപ്പെടാറുള്ളത് ട്രാഡീഷണിൽ നിന്നു മാറിയിട്ട് ഒരു സ്പോർട്സ് കരാട്ടേ ഒക്കെയാണ് ഇപ്പോൾ കരാട്ടെ ആയിക്കൊണ്ടിരിക്കുന്നത് ആ എനിമിയെ എങ്ങനെയും എങ്ങനെയും ഇല്ലാതാക്കാം എന്നുള്ള ഒരു കൺസ്പെക്ട് നിന്ന് ഇപ്പോൾ റെസ്പെക്ട് ചെയ്തിട്ട് ഒരു സ്പോർട്സ്കാരായിട്ടതിലേക്ക് അറ്റാ പരമാധി പരമാവധി അറ്റാക്കുകൾ കുറച്ചിട്ട് അറ്റാക്ക് ചെയ്താലും അതിൻ്റെ എഫക്റ്റ് കുറച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവേ കണ്ടു വരാറുള്ളത് അപ്പം അത് നമ്മുടെ മാനസികമായിട്ടുള്ള മനസ്സിൻ്റെ വളർച്ചയാണ് അതു പോലെ തന്നെ എനിക്കതിൻ്റെ ഉപകാരപ്പെട്ടത് എന്നു പറഞ്ഞാലും നമ്മുടെയടുത്ത് പല തീരുമാനങ്ങളിലും നമുക്കത് പോസിറ്റീവായി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് പെട്ടെന്നെടുത്ത് തീരുമാനം എടുക്കാതെ വെയിറ്റ് ചെയ്ത് ടൈമെടുത്ത് മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കാനുള്ള ഒരു ഒരു ഒരു ഐഡിയ ഒക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം അതുപോലെ തന്നെ പഠനത്തിൽ അതിൻ്റെ പഠനത്തിൽ പഠിപ്പിക്കലൊക്കെ അതിൻ്റെ മെച്ചങ്ങൾ കാണലുണ്ട്